ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില കല്പിക്കുന്ന ഒന്നാണ് മനസ്സമാധാനം അതില്ലെങ്കിൽ ഒന്നുമില്ല എത്ര നമ്മൾ ഉണ്ടാക്കിയെന്നു പറഞ്ഞാലും സമാധാനത്തോടെ നമുക്കൊന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്തുണ്ടാക്കി എത്ര ക്യാഷ് ഉണ്ടെന്നു പറഞ്ഞാലും ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ് മനസ്സമാധാനം വേണം ഇന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സമാധാനം ഉണ്ടെങ്കിൽ നമുക്കൊരു ഭക്ഷണം കഴിക്കുന്നതിലോ കിടക്കുന്നതിലോ എന്തു കാര്യം ചെയ്യുന്നതിലും ഒരു സംതൃപ്തി ഉണ്ടാകും അല്ലാതെ കുറേ ക്യാഷ് ഉണ്ടെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്ത് ഉണ്ടായിട്ടും കാര്യമില്ല മനസ്സമാധാനമാണ് വേണ്ടത്